പാട്ട് എല്ലാവർക്കും പാട്ടുപാടാൻ അറിയത്തില്ലെങ്കിലും എല്ലാവർക്കും പാട്ട് ഭയങ്കര ഇഷ്ടാവാണ് മൂളിപ്പാട്ടെങ്കിലും എല്ലാവരും പാടും അപ്പോൾ മനസിന് നല്ല ഒരു സന്തോഷമാണ് പാട്ട് പാടുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് എല്ലാ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ഒരു പാട്ട് കൊണ്ടൊക്കെ സാധിക്കും നമ്മൾ കൂടുതൽ നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പാട്ടാണ് നമ്മൾ കൂടുതലും പാടുന്നത് ദൈവമാണല്ലോ എല്ലാം ദൈവം പാട്ട് പാടുമ്പോൾ നമ്മൾ മനസിന് സന്തോഷം പാട്ട് പാടി മൂളിപ്പാട്ട് നമ്മളെപ്പോഴും മനസിൽ എപ്പോഴും പാട്ട് പാടുന്നവരാണല്ലോ കൂട മറ്റുള്ളവർക്ക് നമ്മൾ പാടീ പാടുമ്പോൾ മറ്റുള്ളവർ കൊച്ചുപിള്ളേരെ നമ്മളെ ഉറക്കുന്നതും കുഞ്ഞു കുഞ്ഞു പിള്ളേരെയൊക്കെ പാട്ടുപാടി നമ്മൾ ഉറക്കുമ്പോഴൊക്കെ അ കുഞ്ഞുങ്ങളുടെ സന്തോഷോം ചിരിയും കാണുമ്പോൾ നമ്മൾ പാടുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടവാണ് നമ്മൾ പാട്ടുപാടി കൊടുക്കുമ്പം ആ അവരുടെ പാട്ടുപാടി അവരെ ഉറക്കാറുണ്ട്

വളരെ പ പാട്ട് ഒത്തിരി നല്ലതാണ് ഒരു രോഗങ്ങളിൽ നിന്നുപോലും നമുക്ക് മറ്റുള്ളവരുടെ രോഗങ്ങളിൽ നിന്നുപോലും നമുക്ക് അവരുടെ മറക്കാൻ സാധിക്കും പാട്ട് പാടും നമ്മളുടെ പല വേദനകളും നമുക്ക് പാട്ടിലൂടെ നമുക്ക് മറക്കാൻ സാധിക്കും